എന്റെ വീട്ടിലേക്ക് ആര് ആരെങ്കിലും അതിഥികൾ വന്നെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണം കൊടുക്കാന് കഴിയില്ലല്ലോ അപ്പം ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് എണ്ണയിൽ പൊരിക്കുന്ന അങ്ങനത്തെ ഒന്നും ഞാൻ വീട്ടിൽ അങ്ങനെ ആക്കുന്നില്ല അത്ര നല്ലതും അല്ല അല്ലേ എണ്ണയിൽ പൊരിക്കുന്നതും കരിക്കുന്നതും ഒന്നും പിന്നെ ഞാന് അതൊന്നും ആക്കലില്ല പിന്നെ ഞാൻ അധികം ഇത് പിന്നെ അവർ വന്നെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എല്ലാം ആക്കും അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ അതിനു കൊടുക്കുന്നത് അവർക്കെല്ലാം കൊടുക്കുന്നത് ഇഡ്ഡലി എല്ലാം ആക്കിയിട്ട് ഞാൻ പിന്നെ ഇത് ആക്കൽ കുറവ് തന്നെ ഇതിനെ പറ്റി നല്ല ആക്കൽ ഞാൻ കുറവ് തന്നെ ഇത് എണ്ണയിൽ പൊരിച്ചിട്ടു പഴം പൊരി അങ്ങനത്തെ എല്ലാം ആക്കൽ കുറവ് തന്നെ ഇത് ആക്കലില്ല അങ്ങനെ ഒന്നും ആക്കലില്ല ഞാൻ പിന്നെ പിന്നെ അധികം ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ആരെങ്കിലും അതിഥികള് വന്നെങ്കിൽ കോഴിക്കറി വയ്ക്കും അത് എന്റെ സ്പെഷ്യലായിട്ടു പിന്നെ ഞാൻ ആക്കിയിട്ട് കൊടുക്കുന്നത് അത് തന്നെ പിന്നെ ആപിയക്ക് എന്തെങ്കിലും ബേക്കറി സാധനം കൊടുക്കലാണ് പതിവ് പിന്നെ രാവിലത്തെ അപ്പവും അപ്പം ഉണ്ടെങ്കിൽ ദോശയുടെ മാവ് എല്ലാം ഉണ്ടെങ്കിൽ അതിൽ ദോശ ആക്കിയിട്ട് കൊടുക്കും ദോശ ഇപ്പോൾ വീട്ടിൽ പിള്ളേരെ ദോശ ആക്കിയാൽ പിള്ളേര്ക്ക് ഭയങ്കര ഇഷ്ടം തന്നെ അത് പിന്നെ പിള്ളേര്ക്ക് ഞങ്ങളുടെ പിള്ളേർ തിന്നും പിന്നെ വരുന്നവര് നീര് ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇതുങ്ങള്ക്ക് ആകും പിന്നെ ബയറ്റക്കു കേടൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഇഡലി എല്ലാം പണ്ട് ഞങ്ങൾ വീട്ടിൽ ആരെങ്കിലും ബന്നെങ്ങാ ഇഡ്ഡലി തന്നെ ആക്കികൊണ്ട് ഉണ്ടായി പണ്ട് ഇപ്പം എത്ര ഇഡലി ആക്കിയാലും നമുക്ക് ഇഡലിനോട് ഒരു മടുപ്പൊന്നും തോന്നലില്ല ഇപ്പോൾ ഇഡലി എന്നു പറയുമ്പോൾ തന്നെ ഇഡലിയിൽ ഗ്യാസ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇപ്പം ഈ ഗ്യാസ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവര്ക്കും തിന്നാനും ഇഡലി തിന്നാനെല്ലാം ഭയങ്കര ഇത് തന്നെ പിന്നെ ഇഡലി ആക്കുമ്പോൾ മുൻപെല്ലാം ഞാൻ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടാകുമ്പോൾ ഇഡലി ആക്കുമ്പഴേക്ക് പണ്ട് പിന്നെ നമുക്ക് അങ്ങനെ കുറേ പൈസ ഒന്നും ഇല്ലല്ലോ നമ്മൾ ഇപ്പം ആങ്കും കുറേ പൈസ ഉണ്ട് എന്നല്ല ഞാന് പറഞ്ഞത് പണ്ട് നമുക്ക് ഇങ്ങനെ പാവം അങ്ങനെ കുറേ കഷ്ടം വന്നിട്ട് നമ്മൾ ജീവിച്ചത് പിന്നെ നമ്മൾക്ക് ഇനി കുറെ ഇങ്ങനെ പൈസ ചിലവിടാനൊന്നും കഴിയാണ്ട് കൂലിപ്പണി എല്ലാം എടുത്തിട്ടു ജീവിക്കുന്നവരല്ലേ അതിന് പൈസ ചെലവിടാനൊന്നും എന്റെ അപ്പനും അമ്മയും പിന്ന ഇഡലി ആക്കീക്ക് ചട്നി ആക്കും അത് മുമ്പ് നമ്മൾ ചട്നി ആക്കി കൊണ്ടോയത് ഇത് നല്ല ഇത് മറ്റേ മുളകില്ലേ ഉണങ്ങിയ മുളക് അതിനെ ഇങ്ങനെ ചുട്ടിട്ട് അരച്ചിട്ട് ചട്നി ആക്കിയിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അതും പിന്നെ വരുന്ന അതിഥികള്ക്കായാലും നല്ല ഇഷ്ടമായി കൊണ്ടു ഉണ്ടായിന് കൊടുക്കാന് പോയെങ്കിൽ പിന്നെ നീരുള്ളി എടുക്കും നീരുള്ളി ഇട്ടിട്ട് ചട്നി ആക്കിയെങ്കിൽ പിന്നെ വരുന്ന അതിഥികള്ക്കെല്ലാം തിന്നാനും നല്ല ഇഷ്ടം ഉണ്ടായി പിന്നെ കുറച്ചു കുറച്ചു കഴിയുമ്പോഴെക്ക് ആ ഇഡലിക്കു കോഴിച്ചാർ എല്ലാം ആക്കിയെങ്കിൽ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെടാന് തുടങ്ങി പിന്നെ എനിക്ക് എനിക്ക് മുമ്പെല്ലാം പിന്നെ ഇടിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിന് അപ്പോൾ എന്നെ പോലെന്നാരിക്കും മറ്റവർ എന്ന് പറഞ്ഞിട്ട് ഇടിയപ്പം ആക്കുന്നുണ്ടായിനി ഇടിയപ്പം ആക്കിയെങ്കിൽ ഇനി പാൽ ആക്കിക്കൊണ്ടേ ഞാൻ മുമ്പ് ഇടിയപ്പം ആക്കിട്ടേബളക്ക് മറ്റേ ഇതുണ്ട് ഇല്ലേ പ്പ തേങ്ങ അരച്ചിട്ട് നമ്മൾ ആ കല്ലിൽ തന്നെ അരക്കൽ തേങ്ങ കല്ലിൽ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടു തരി ഏലക്കയും ഇട്ടിട്ട് ഇത് പിന്നെ അതിനെ ഇപ്പോൾ അങ്ങട് അരച്ചിട്ട് പാലാക്കും അല്ലെങ്കിൽ തേങ്ങയെ അരച്ചിട്ട് അതിലൊക്കെ ഏലക്ക അപ്പോൾ ഇടലാണ് പിന്നെ പൊടിച്ചിട്ട് ഏലക്ക ഇടുമ്പം അതിന്റെ തേങ്ങയെ കുറച്ചു അരച്ചിട്ട് അതിനെ തോര്ത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞിട്ടു പാലെടുക്കും പാൽ എടുത്തിട്ടായിട്ട് പിന്നെ അതിനെ ഇതാക്കും എന്തിയെ പാലെടുത്തിട്ടേ അയില് ഏലക്ക പൊടിച്ചിട്ട് പിന്നെ ആ ചെറിയ ഇതുണ്ടല്ലോ കായ് അതിനെ ഇങ്ങനെ എനിക്ക് മുൻപെല്ലാം ഇല്ലേ ഇത് എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് തിന്നാന് ഇഷ്ടം ഉണ്ടായത് കറി തന്നെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി മറ്റപ്യ വരുന്നവര്ക്കും അങ്ങനെ തന്നെ കറി തന്നെ ആയിരിക്കും മറ്റേ അതിഥികള് എല്ലാം വീട്ടിലേക്കു വന്നെങ്കിൽ പിന്നെ രാവിലത്തെ ചായക്ക് ഇല്ലെങ്കില് എപ്പളും ദോശ അങ്ങന്നെ അക്കുന്നതല്ലേ അപ്പോൾ ആരെങ്കിലും അഥിതികൾ ഉള്ളപ്പോൾ ഒന്നുകില് നമ്മൾ ചായക്ക് ഇത് ഇടിയപ്പം പാൽ ആക്കും പിന്നെ അതിനു കോഴിക്കറി ആക്കും അതല്ലെങ്കിൽ കടലക്കറിയോ മറ്റോ ആക്കിയിട്ട് കൊടുക്കും നല്ല പാങ്ങുള്ള കടലക്കറി ആക്കിയിട്ട് അതിലേക്കു നീരള്ളിയെ വറുത്തിട്ടിട്ട് കലം പോര്ന്നാല് നല്ല കോഴിക്കറി പോലെ ആണ് തിന്നാനും നല്ല നല്ല പാങ്ങുണ്ട് അപ്പോൾ അത് കൊടുക്കും അതിഥികള്ക്കായിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ട് നമ്മൾക്ക് സ്റ്റോറിൻ്റെ അരി വയ്ക്കലില്ല അപ്പം ആരെങ്കിലും വന്നെങ്കിൽ അപ്യക്ക് പീടികയിലത്തെ അരി ചോറാക്കിയിട്ട് കൊടുക്കും അപ്പോൾ അപ്പം ഇപ്പോഴത്തെ ഇപ്പം എല്ലാവർക്കും സ്റ്റോറിലെ അരി ചോറ് തന്നെയല്ലേ ഇഷ്ടം അത് തന്നെ തിന്ന് തിന്നിട്ട് അത്കൊണ്ട് പിന്നെ ചിലപ്പം പറയും സ്റ്റോറിലെ അരിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റോറിലെ അരി താന്ന് അപ്പോൾ രണ്ടു ചോറും വയ്ക്കും നമ്മൾ ഇത് പിന്നെ വേറെ ഇതെന്തും ആക്കലില്ല പിന്നെ ഞാൻ ഇത് എന്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലൊണ്ടെങ്കില് അതിനെ കട്ട ആക്കിയിട്ട് കൊടുക്കും അത് അല്ലാതെ വേറെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്തു അങ്ങനെ അങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ ഉത്സവത്തിന് എല്ലാം എന്താക്കുവാ അതിനു മുമ്പ് തന്നെ ഉത്സവത്തിന് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉത്സത്തിനു ഈ ഓണം വിഷു എല്ലാം വരുമ്പോൾ നമ്മുടെ വീട്ടിന്റെ അടുത്ത് കുറെ ചുറ്റുവട്ടത്ത് മുസ്ലീംസിന്റെ പൊര ഉണ്ട് രണ്ടു മുസ്ലീംസിന്റെ പൊര ഉണ്ട് അപ്പോൾ ഞാന് എന്താക്കുമായിരുന്നു തലേ ദിവസം തന്നെ ഓണത്തിന്റേയും വിഷുവിന്റേയും തലേ ദിവസം തന്നെ അപ്പേക്ക് അപ്പഴേക്ക് ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം എല്ലാം അപ്പേക്ക് നമ്മൾ ഉണ്ണിയപ്പവും ഇഡ്ഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് നല്ല പാങ്ങായിട്ട് സാമ്പാര് ഉണ്ടാക്കാന് അറിയും അപ്പോൾ സാമ്പാർ പിന്നെ അപ്പേക്ക് ഭയങ്കര ഇഷ്ട്ടവാ മുസ്ലീംസിന് എല്ലാം അപ്പോൾ ഞാന് എന്താക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയി ട്ട് സ്പെഷ്യല് ആയിട്ട് ഞാന് തലേ ദിവസം തന്നെ നല്ല വറുത്തരച്ചിട്ട് നല്ല സാമ്പാർ ഉണ്ടാക്കും നല്ല മല്ലി ചപ്പെല്ലാം ഇട്ടിട്ടു നല്ല മുരിങ്ങക്ക എല്ലാം ഇട്ടിട്ടു നല്ല സാമ്പാര് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കും തലേദിവസം തന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കും ഉണ്ണിയപ്പവും ഉണ്ടാക്കും ഇത് ഇത്ര എല്ലാം സാധനവും ഉണ്ടാക്കിയിട്ടു ഞാൻ നല്ല പറഞ്ഞെങ്കിൽ ചൂട് ചൂട് തന്നെ ഉണ്ടാക്കിയപാട് തന്നെ ഞാന് ഇതൊക്കെ അവിടെ മൂന്നു മുസ്ലീംസ് ഉണ്ട് രണ്ടല്ല മൂന്നു മുസ്ലീംസിന്റെ വീടുണ്ട് ആ മൂന്നു മുസ്ലീംസിന്റെ വീട്ടിലേക്കും നമ്മൾ ഞാനും എന്റെ മക്കളെല്ലാം ഇല്ലേ ഇത് അപ്പോൾ എല്ലാം ആക്കിയിട്ട് ഞമ്മ കൊണ്ടു കൊടുക്കും പിന്നെ അപ്പം അപ്പേക്ക് അത് സന്തോഷമാണ് അപ്പോൾ എല്ലാ ഓണത്തിനും വിഷുനും നമ്മൾക്ക് അപ്പോൾ ഇങ്ങനെ ഒരു മുസ്ലീംസിന്റെ വീട്ടുകാർ അവർക്ക് അവരെ വീട്ടില് എത്ര തിന്നാൻ ഉണ്ടെങ്കിലും അവർ വലിയ പണക്കാർ തിന്നാനുണ്ടെങ്കിലും നമ്മൾ ആക്കിയ ഭക്ഷണം കഴിക്കാന് അപ്പേക്ക് ഭയങ്കര ഇഷ്ട്ം സാമ്പാര് എല്ലാം അപ്പേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ പിന്നെ സാമ്പാര് ഉണ്ടാക്കാനൊന്നും അപ്പേക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ ആക്കുന്ന ഇത് ആഹാരമെല്ലാം കഴിക്കാൻ അപ്പേക്ക് ഭയങ്കര ഇഷ്ടം അപ്പേക്ക് പിന്നെ നമ്മൾക്ക് ചിക്കന് പിന്നെ ഇതൊന്നും വേണ്ട അവരിക്ക് പിന്നെ അവരിക്ക് വേണ്ടത് തന്നെ സാമ്പാർ അങ്ങനത്തെ എല്ലാമാണ് അവരിക്ക് വേണ്ടേ അപ്പോൾ അവർ സാമ്പാർ ഇത് കൂട്ടിയിട്ട് നല്ല പാങ്ങോടെ ഇത് കഴിക്കും ഭക്ഷണമെല്ലാം കഴിക്കും നമ്മോ കൊണ്ട് കൊടുത്ത ഭക്ഷണത്തിനെ എല്ലാം കഴിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾക്കും സന്തോഷം അങ്ങനെ അതുപോലെ തന്നെ അപ്പി അപ്പരെ പെരുന്നാളെല്ലാം വന്നിട്ട് നമ്മൾക്ക് നമ്മൾക്ക് അതിന് ഇത് അത് നമ്മൾ നമ്മൾക്ക് അവർ പെരുന്നാള് അവരെ പെരുന്നാളിനു അവർ ഇത് അവർ എന്തെങ്കിലും നല്ല ബിരിയാണി അതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾക്കും തരും പിന്നെ എന്റെ മക്കൾക്കെല്ലാം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവർ തന്നിട്ട് ആയിറ്റുമ്പോ നമ്മളും അത് കഴിക്കും നമ്മൾക്ക് പിന്നെ ഒരു നല്ല മതസൗഹൃദം ആണ് നമ്മൾക്ക് ഹിന്ദുവോ മുസ്ലീമോ അങ്ങനത്തെ ഒന്നും ഇല്ല നമ്മ എല്ലാവരേയും സഹോദരങ്ങളെ പോലെ കരുതണോണ്ട് നമുക്ക് അവർ തരുന്ന ആഹാരം കഴിക്കാനൊന്നും നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ അപ്പേക്ക് ആയെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് ഒന്നുമില്ല അത്രയും നല്ല സ്നേഹത്തോടെ ഇണ്ടാതന്ന് അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് ഒന്നും അല്ല ഇങ്ങനെ ആഹാരം കഴിക്കൊന്നോണ്ട് അതൊന്നും എന്ത് വലിയ ബുദ്ധിമുട്ട് ഒന്നുമല്ല പിന്നെ ഞാന് ഇത് പിറ്റേദിവസം എന്തൊക്കെ പറഞ്ഞെങ്ക് അപ്പേയക്ക് പായസം ഭയങ്കര ഇഷ്ട നമ്മള് ഉണ്ടാക്കുന്ന പായസം കഴിക്കാന് പ്രത്യേകിച്ചിട്ടും പാല്പായസം എല്ലാം അത് എങ്ങനെ ഉണ്ടാക്കും അപ്പ്യ പിന്നെ അപ്പ്യക്ക് ഇതുണ്ടാക്കാന് അറിയില്ല എന്ത് അറിയത്തില്ല ചില അപ്യക്ക് എല്ലാം അറിയും പിന്നെ കടല വേണേന്റെ പായസം അപ്പോൾ നല്ല പാങ്ങോടെ കടല വെള്ളേന്റെ പായസം ആക്കിയിട്ട് ഞാന് എന്തൊക്കെയോ പറഞ്ഞെങ്കിൽ ഇത് കടല വെള്ളേന്റെ പങ്ങാടെ വീശിയിട്ടു പായസം ഉണ്ടാക്കിയിട്ടു പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ തേങ്ങ പാൽ എടുത്തിട്ടു പായസം ഉണ്ടാക്കും എന്നിട്ട് പിന്നെ ഇത് അതിലേക്ക് ഞാനില്ലേ ഇത് പായസം എല്ലാമായിട്ടു നല്ല തിളച്ചിട്ടു വരുമ്പോഴേക്ക് ഏലക്കപൊടിയെല്ലാം ഇട്ടിട്ടു അണ്ടിപ്പരിപ്പും മറ്റേ മുന്തിരി എല്ലാം ഇട്ടിട്ടു ഞാൻ അതിനെ ഇതാക്കും എന്ത് അതിനെ വറുത്തിടും വറുത്തിട്ട് ഞാന് എന്താക്കും പറഞ്ഞാൽ നല്ല പാങ്ങടെ തേങ്ങ ഇങ്ങന്നെ കൊത്തി കൊത്തിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടു അതിനെ ഇങ്ങനെ നല്ല പാങ്ങോട് നെയ്യിൽ വറുത്തിട്ട് ഇടും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ആ പായസം കുടിക്കുമ്പോള് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ നെയ്യിടെ മണവും പിന്നെ ആ തേങ്ങ നല്ല വറുത്ത ഇത് വറുത്തതിന്റെ ആ മണവും എല്ലാമായിട്ടു ഇല്ലേ ഏലക്കന്റെ മണവും എല്ലാം കൂടുമ്പോൾ അതെന്തോ ഒരു ഇഷ്ട്ടം തന്നെ അപ്പക്കേക്ക് കുടിക്കാന് ആ പായസം കുടിക്കാന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാല്പ്പായസം ഇഷ്ടം തന്നെ ഭയങ്കര ഇഷ്ടം തന്നെ പാല്പ്പായസം പിന്നെ എന്നെങ്കിലും അവറ്റെ മുസ്താഫ ഇച്ചാക്ക് അവര്ക്കെല്ലാം ഇഷ്ടം ഈ വെല്ലത്തിന്റെ പായസം ആണ് പിന്നെ വേറെ അതിൽ വെല്ലത്തിന്റെ പായസം ഉണ്ടാക്കുമ്പോഴേക്ക് പിന്നെ പാൽ കൂട്ടിയെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല പാൽ കൂട്ടിയിട്ടു വെല്ലത്തിന്റെ പായസം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കണം വെല്ലത്തിന്റെ പായസം തേങ്ങയെല്ലാം പാങ്ങോടെ അരിച്ചിട്ടു തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് പായസം ഉണ്ടാക്കിയെങ്കിൽ അതിനു എന്തൊരു ടേസ്റ്റ് തന്നെ അപ്പോൾ ആ പായസത്തിനു വേണ്ടിയിട്ടും കുറേ പിന്നെ ഞങ്ങൾ എല്ലാം അംഗനവാടിയിലെല്ലാം ഇല്ലേ എന്തെങ്കിലും പരിപാടി എല്ലാം വച്ചെങ്കിൽ പിന്നെ നമ്മൾ ഈ പായസം എല്ലാം ഉണ്ടാക്കിയെങ്കിലില്ലേ അപ്പേക്ക് തിന്നാൻ എന്തൊരു ഇഷ്ടാണെന്ന് പറയണ്ട എന്തൊരു ഇഷ്ടമാണ് അപ്പേക്ക് തിന്നാൻ പിന്നെ ഇപ്പം ഈ പാല്പ്പായസം നമുക്ക് പിന്നെ ഒരു നൂറാൾക്ക് പരിപാടി വച്ചെങ്കിൽ നൂറ്റി അൻപത് ആൾ എന്നെക്കാളും കൂടുതൽ എല്ലാം ഉണ്ടാവും ഈ പായസം കുടിക്കാന് വേണ്ടിയിട്ട് തന്നെ വരും നമ്മളത് ഒരു മുസ്ലീം ഏരിയ തന്നെ അപ്പോൾ അപ്പേക്കില്ലേലെ ഈ പായസം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് അവർ വെനെ ആ പായസത്തിനെ ഇത് മുമ്പ് തന്നെ ചോറ് വയ്ക്കുന്നതിന്റെ മുമ്പ് തന്നെ പായസത്തെ കുടിക്കും പായസത്തിനെ ആദ്യം അവർ കുടിക്കും അപ്പോൾ അവർക്ക് ഇത് അതിനോട് എന്തോ ഒരു പ്രിയം പ്രിയം എന്തോ ഒരു പ്രിയം അപ്പക്ക് ഈ പായസം കുടിക്കലിനോട് ഭയങ്കര ഇഷ്ടം തന്നെ അപ്പിയക്ക് അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് അതിനോട് ഒരു നല്ല ഇത് അവർ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ പായസം എല്ലാം ഇല്ലേ അവർ അത്ര നല്ല ഇന്ട്രസ്റ്റോടെ കുടിക്കുമ്പോൾ നമുക്ക് എന്തോരം നല്ല ഇതാണ് സന്തോഷമാണ് മനസിൽ ഇങ്ങനെ അവർ നല്ല ഒരു നല്ലൊരു സൗഹൃദം അല്ലേ അപ്പോൾ ഈ പായസം ഇങ്ങനെ ഒക്കെ നടക്കുന്നത് പിന്നെ അവരെ പായസം നമ്മൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്താണോ അവർക്ക് എന്തോ അവർക്ക് അത്ര പായസം ഉണ്ടാക്കാനെല്ലാം അവര്ക്ക് അറിയുന്നില്ല അവർ നമ്മൾ ഇടുന്ന ഇന്ഗ്രീഡിയന്സ് ഒന്നും അല്ല അവർ പായസത്തിലേക്ക് വേറെ തന്നെ അവർ ജീരകമെല്ലാം ഇടും അത് എനിക്ക് കുടിക്കാന് ജീരകമെല്ലാം ഇട്ട പായസം കുടിക്കാന് വലിയ ഇഷ്ട്മല്ല ഇത് പിന്നെ ഞാൻ ജീരകവും ഒന്നും ഇടലില്ല മുമ്പ് തന്നെ ജീരകം ഒന്നും ഇടാതെ പായസം ആക്കിയി ട്ട് നമുക്ക് ശീലം ആയതുകൊണ്ട് ആയിരിക്കും നമ്മൾ നമുക്ക് ജീരകം ഇടുന്നതിനോട് ഒരു യോജിപ്പില്ല പിന്നെ അവർ അതിടും പിന്നെ അവരെ ഒരു പെരാന്നാക്കെല്ലാം ആക്കുന്നത് ഇത് തിന്നുന്നുണ്ടല്ലോ അത് അവർ നമുക്ക് തരും അപ്പോൾ തന്നെ ഞാൻ അത് ഉണ്ടാക്കാന് വേണ്ടിയിട്ട് കുറേ നോക്കി അന്നെങ്കിൽ എനിക്ക് അത്ര അറിയുന്നില്ല ഉണ്ടാക്കാന് അതിനെ ഞാൻ കുറേ നോക്കി അത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടു വയ്ക്കാന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പാചകവും അതെല്ലാം ചെയ്യാന് ഒരു സമയം നമുക്ക് കിട്ടാത്തതിനെ കൊണ്ടായിരിക്കും വലിയ ഇതാവുന്നില്ല നമ്മൾക്ക് എന്താണ് ഇത്ര ഇതാക്കിയെന്നു നമുക്ക് കഴിയുന്നേ ഇല്ല അവരെ പോലെ അങ്ങനത്തെ പെരുന്നാളിന്റെ തിന്നാനെല്ലാം ഉണ്ടാക്കാൻ എനിക്കറിയുന്നില്ല പിന്നെ ഞാൻ ഈ ഉണ്ണിയപ്പവും പിന്നെ ഇഡ്ഡലി അങ്ങനത്തെ സാധനമെല്ലാം ഉണ്ടാക്കും പിന്നെ കൊഴക്കട്ട ഉണ്ടാക്കും ഇത് അങ്ങന്നെ എന്റെ മക്കൾക്കെല്ലാം ഞാൻ കൊഴക്കട്ട ആരെങ്കിലും അതിഥികൾ വന്നെങ്കിൽ കൊഴക്കട്ട എല്ലാം ഉണ്ടാക്കിയിട്ട് കടമ്പിന്റെ ഉള്ളിൽ പിന്നെ ബെല്ലം തേങ്ങ ഇട്ടിട്ടുണ്ട് ആഹാരവും പലഹാരവും എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വലിയ ഇന്ട്രസ്റ്റ് ആണ് പിന്നെ മഞ്ഞ ചപ്പില ആകുന്ന സമയത്ത് മഞ്ഞ ചപ്പിലയില് അട ചുട്ടിട്ട് തേങ്ങ വെല്ലം എല്ലാം ഇട്ടിട്ടു അട ചുട്ടിട്ട് ആരെങ്കിലും അതിഥികള് എല്ലാം വന്നെങ്കിൽ പിന്നെ ഞാൻ അട ചുട്ടിട്ട് ആവിയിൽ വേവിച്ചിട്ട് അട ചുട്ടിട്ട് എല്ലാം കൊടുക്കും അപ്പോൾ അത് അതൊക്കെ അത് ഇങ്ങനെ വൈകുന്നേരത്തെ ചായയ്ക്ക് എല്ലാം തിന്നാന് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം ഉപയോഗിക്കുന്നതിനേക്കാളും അത്രയ്ക്ക് നല്ലതാണ് ഇപ്പോൾ ഈ അടയെല്ലാം തിന്നെങ്കിൽ നല്ലത് അല്ലേ പിന്നെ ഈ എച്ച്ബി എല്ലാം കുറയുന്നുണ്ടെങ്കിലും നല്ല ശര്ക്കര എല്ലാം ഇട്ടിട്ടു ആക്കുന്ന സാധനം അല്ലേ അതുകൊണ്ട് അതും ഇഷ്ടപ്പെടുന്നു അവഋക്ക് ഇപ്പോഴത്തെ പഴഞ്ചന് ആള്ക്ക് ഇപ്പോഴത്തെ അല്ല മുമ്പത്തെ പഴഞ്ചന് ആള്ക്കാരെല്ലാം അങ്ങനെ ആവിയിൽ വേവിച്ച പിന്നെ ഹെല്ത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ അല്ലേ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾക്ക് അതൊരു സമാധാനം ഇവർക്ക് അത് ഇഷ്ടം അല്ലോ എന്ന് പറയുന്നൊരു സമാധാനം അത്ര തന്നെ അതിനെ കൊണ്ട് അങ്ങനത്തെ ആഹാരമെല്ലാം വന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കും